ഇപ്പോൾ നമുക്ക് ഒരുപാട് ഭക്ഷണസാധനങ്ങൾ നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് അതെങ്ങനെയാണ് എവിടെ നിന്നാണ് അതിൽ അതിൻ്റെ ഒരു വഴിയെങ്ങനെയാണെന്നൊന്നും പലർക്കും അറിയില്ല ഇപ്പോൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ആണ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത് ഈ കൃഷി ചെയുന്ന ഇപ്പോൾ അരിയാണെങ്കിലും അത്പോലെ കപ്പ മരച്ചീനി വാഴ ഇപ്പോൾ പഴം അതൊക്കെ നമുക്ക് കിട്ടും ഇതൊക്കെ കൃഷി ചെയ്ത് വന്നതാണ് അപ്പോൾ കൃഷിയെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കേണ്ടത് ഇപ്പോൾ കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങളെന്തൊക്കെയാണ് ഇപ്പോൾ അത് എങ്ങനെയാണ് വിളവെടുക്കുന്നത് അത്പോലെ എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ നെല്ലായിക്കോട്ടെ നെല്ലെങ്ങനെയാണൊരു വയലിൽ എങ്ങനെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത് അതിന് എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത് അത്പോലെ അതിന് നെല്ല് കൊയ്തതിന് ശേഷം അത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്ന് വരുന്നത് ഇതൊന്നും നമുക്കറിയില്ല ഇതൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ ഭക്ഷണസാധനങ്ങളുടെ വില അറിയണമെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മളുടെ കയ്യിലെത്തുന്നത് നമ്മളൊരു പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നു പക്ഷെ അതിൻ്റെ പുറകിലൊരുപാട് കൈകളുടെ നല്ല രീതിയിലുള്ള ഒരു അധ്വാനത്തിലൂടെയാണത് വരുന്നത് ഇപ്പോൾ കന്നുകാലി കൃഷിയെങ്ങനെയാണ് അത്പോലെ കന്നുകാലി ഇപ്പോൾ പാൽ നമുക്ക് കിട്ടുന്നത് എതി എങ്ങനെയാണ് കന്നുകാലികളെ വളർത്തുന്നതെങ്ങനെയാണ് ആരുടെ ഭക്ഷണങ്ങൾ അത്പോലെ അസംസ്കൃത വസ്തുക്കളെന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ അത് അറിയേണ്ടതുണ്ട്